ഇരുപത്തി നാല് മൂന്ന് രണ്ടായിരം പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഒന്ന് ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തഞ്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന്